ഹലോ ഹലോ മരിയയാണോ അത് ഞാൻ എന്തോ കൗൺസലിങ്ങിനെക്കുറിച്ച് എനിക്കൊരു കൗൺസിലിങ്ങ് വേണമായിരുന്നു അപ്പോൾ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ

എൻ്റെ പേര് ശുഭ വയസ്സ് നാല്പത്തിരണ്ട് വയസ്സ് വീട് കോട്ടക്കൽ

ഇത് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഇത് കൗൺസിൽ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ

അതെ ആ ആ

അതെ

അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ദിവസം മരിയയുടെ അടുത്തോട്ട് വരാം ഇപ്പോൾ ആ

ആ ആ

ആ ഒരു ദിവസം ഞാൻ വന്നോളാം ഇപ്പം ശരിയെങ്കിൽ ഓക്കെ ഓക്കെ ഓക്കെ ആ